ഹലോ ആ പറഞ്ഞോളൂ

ആ ഏഴാം ക്ലാസ് എത്രാം ക്ലാസ്സിലേക്കാണ് ഏഴാം ക്ലാസ്സിലേക്കോ ഏഴാം ക്ലാസ്സിലേക്ക് ഞാൻ ഒന്ന് നോക്കട്ടെ ഇതിനകത്ത് ചേർക്കാൻ പറ്റുമോന്ന് ആ നമ്മൾ ഒരു ക്ലാസ്സിലേക്ക് അൻപത് പേർ ആണ് വരുന്നത് ആ ഏഴാം ക്ലാസ്സിൽ ആ ഏഴാം ക്ലാസ്സിൽ നാൽപ്പത്തെട്ട് പേരെ ഉള്ളൂ കുഴപ്പം ഇല്ല നമുക്ക് ചേർക്കാം കുഴപ്പം ഇല്ല ആ പക്ഷേ ആണല്ലേ അപ്പം സിലബസ് വ്യത്യാസം ഇല്ലായിരിക്കാം ആ അത് നമുക്ക് കുഴപ്പം ഇല്ല അത് നമുക്ക് ടീച്ചറോട് റെഡിയാക്കാ ഇപ്പം ആ ഓക്കെ ഓക്കെ കുഴപ്പം ഇല്ല നമുക്ക് അത് റെഡിയാക്കാം ആ ഓക്കെ ഇനി അഥവാ നമുക്ക് ക്ലാസ്സിൽ ഇരുന്ന് ആ ക്ലാസ്സിൽ ഇരുന്ന് പഠിപ്പിക്കാൻ ബുദ്ധിമുട്ട് ആണെങ്കിൽ നമുക്ക് ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങൾ ഒക്കെ അറേഞ്ച് ചെയ്യാം അതൊന്നും പ്രശ്നം അല്ല ആ എപ്പോഴാണ് വരുന്നത് എന്നാൽ തിങ്കളാഴ്ചയാണോ ആ തിങ്കളാഴ്ച പോന്നോളൂ കുഴപ്പം ഇല്ല ആ ആ ചേർക്കാം മാക്സിമം ചേർക്കാം അപ്പം ആദ്യം വരുമ്പം നമുക്ക് ഒരു പതിനയ്യായിരം രൂപ ആ വേണ്ടി വരൂട്ടോ ആ ഓക്കെ ആ പതിനയ്യായിരം രൂപ ആണ് വേണ്ടത് പിന്നെ ഡോണേഷൻ വരുന്നത് അൻപതിനായിരം രൂപ ആണ് ആ പിന്നെ ഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്

ആ ഓക്കെ ഓക്കെ ആ മൺഡേ പോവുന്നുള്ളൂ എന്നാൽ ടി സി കൊണ്ടേരണോട്ടോ കുട്ടീൻ്റെ ആ ഓക്കെ ആ ഓക്കെ